സമൂഹ മാധ്യമത്തില് എന്റെ ഫോട്ടോകള് പബ്ലിക് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പം നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സും എന്നെ ഫോളോ ചെയ്യുന്ന ആള്ക്കാർ ആരൊക്കെയാണ് അവര്ക്ക് കാണാനെ രീതിയില് ഫോട്ടോകള് പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാല് ഇപ്പം നമുക്ക് ഒരു ഒരു നമുക്കിതൊരു ചെറിയ ഒരു ഗി കളി പോലെയാണല്ലോ ഇപ്പം നമ്മുടെ ഒരു പാഷൻ പോലെയാണല്ലോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഓരോ റീൽ ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഓരോ ഫോട്ടോസ് പോസ്റ്റ് ഇപ്പം നമ്മൾ ഒരു വസ്ത്രം ഒക്കെ ഇട്ട് നല്ല ഒരു ഫോട്ടോ ഇട്ടാൽ അത് മറ്റുള്ളവരും കൂടി കാണണം എന്നുള്ളത് ഒരു നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഒരുങ്ങി നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നിട്ട് നമ്മൾ ഓരോ ഫോട്ടോസും അപ്പോൾ നമുക്ക് കൊള്ളാം എന്നുള്ള തോന്നുന്ന ഫോട്ടോസ് ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും എന്നൽ ചിലർ പബ്ലിക് ആയിട്ട് എല്ലാവരും കാണെ പോസ്റ്റ് ചെയ്യും എന്നാൽ എനിക്ക് അത് ആ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ പ്രൈവറ്റായിട്ട് പിന്നെ എൻ്റെ ഫോളോവേഴ്സിനും മാത്രം കാണുന്ന രീതിയിലാണ് ഞാൻ ഫോട്ടോകളൊക്കെയും പോസ്റ്റ് ചെയ്യാറ്